വിദ്യാഭ്യാസം നേടിയ എല്ലാവരും നല്ല പെരുമാറ്റമുള്ളവരും സമൂഹത്തിൽ നന്നായിട്ട് ഇടപഴകുന്നവരും ആണ് എന്നുള്ളൊരു തെറ്റിധാരണയുണ്ട് അത് ശരിയല്ല നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയ ഒരുപാടു പേർ തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഭീകരവാദ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ആളുകളാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്